നമ്മുടെ നാട്ടിലെ പ്രാദേശിക വാര്ത്താ മാധ്യമം എന്ന് പറയുന്നത് മാധ്യമം ഇവിടെ കൂട്തലായിട്ടും അവടെ നാട്ടുംപ്രദേശായത്കൊണ്ട് തന്നെ ദിന പത്രങ്ങളാണ് വരിക മലയാള മനോരമ

അല്ലാതെ പിന്നെ ചെറിയ ചെറിയ സോഷ്യല് മീഡിയാ പോലെ ഉള്ള ഒരുപാട് ചാനലുകള് ഉണ്ട് പക്ഷെ അതെക്കെ ഇപ്പം മാധ്യമങ്ങള് നമ്മളെന്തൊക്ക പറഞ്ഞാലും അവത് അവര്ക്ക് ഒര് അവരുടെ ചെയ്യണ്ട ഒരു ജോലി തന്നെയാണോ ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ അല്ല കാരണം ഞാന് ഓരോ ഏതാണ്ടൊര് വര്ഷത്തോളം ദീപിക എന്ന പത്രത്തില് വര്ക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങള് പലതും

ഇതിനെ മാറ്റിയിരിക്കുകയാണ് മാധ്യമ പ്രവര്ത്തനത്തിന് ഇപ്പം നമ്മുടെ പ്ര പ്രാദേശിക തലത്തിൽ ഉള്ള ഓരോ വാർത്തകളൊക്കെ ചിലപ്പം കൊടുക്കുമ്പം അവര്ക്കതിനകത്തെന്ത് ലാഭം കിട്ടുമെന്ന് നോക്കിയിട്ടേ ഇപ്പം ച് പലരും ആ ഒര് മ വാര്ത്തകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ നോക്കത്തുള്ളൂ അവര്ക്ക് ലാഭം ഇല്ലാത്തൊരു കേസാണെങ്കില് അവര് മിക്കവാറും എന്തെങ്കിലും കാരണങ്ങള് പറഞ്ഞത് ഒഴിവാക്കാണ് ചെയ്യാറ് അങ്ങനെയുള്ള പ്രശ്നങ്ങള് നമ്മുടെ ഇപ്പഴത്തെ മാധ്യമ ഇത് സംബന്ധിച്ച് ഉണ്ട് അത് മെച്ചപ്പെട്ത്താന് എന്ന് പറയുമ്പം നമുക്ക് നമ്മളേറ്റവും കൂടുതല് നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള വാര്ത്തകള് വന്നാൽ മതി അപ്പം നമ്മുടെ ഇപ്പം പറയാണെങ്കില് ഫിൽഗിരി ഇപ്പം ഫില്ഗിരിയെന്ന സ്ഥലത്ത് വാര്ത്തകള് വന്നാല് മാത്രമേ ഈ ഫില്ഗിരിയെന്ന സ്ഥലത്തെ ആള്ക്കാര് ആ പത്രമായാലും ആ ഒര് ചാനലാണെങ്കിലും മാധ്യമം അവര് നോക്കത്തുള്ളൂ ഇപ്പം അല്ലാതിപ്പം നമ്മക്ക് തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന കര്യങ്ങളറിഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല അപ്പം സംസ്ഥാനത്ത് മൊത്തം നടക്കുന്ന മാധ്യമത്തിന്റെ പ്രശ്നവാണെങ്കില് ഓക്കേ നമുക്ക് അണ്ടര്സ്റ്റാന്ഡ് അത് മനസിലാവും പക്ഷെ ഇപ്പം തിരുവന്തപുരത്തെ ഏതെങ്കിലൊര് ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ഒര് സംഭവം ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടെ അറിഞ്ഞിട്ട് കാര്യവില്ല അപ്പം നമുക്ക് അറിയേണ്ടത് നമ്മുടെ പ്രാദേശികപരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെന്താണ് എന്നാണ് നമ്മളറിയേണ്ടത് അപ്പം അതിന് നമ്മളിപ്പം വായിക്കുന്ന ഒരു പത്രം അത് കൊടുത്തിട്ടില്ലെങ്കില് പിന്നെ പത്രം വരുത്തുന്നത് കൊണ്ടോ ആ ഒര് ചാനല് കാണുന്നത് കൊണ്ടോ ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പം പ്രാദേശികപരമായിട്ട് നമുക്ക് ഒരു വരിക വാരിക കൂട്ടണമെങ്കില് ഇല്ലെങ്കിലൊരു ചാനല് അവിടെ ഒന്ന് ഇത് ക്ലച്ച് പിടിച്ച് വരണമെങ്കില് ചെയ്യേണ്ടതെന്ന് പറയുമ്പം മെയിനായിട്ട് ആ പ്രാദേശികപരമായിട്ടുള്ള ആ സ്ഥലത്തെ മെയിനായിട്ടുള്ള കണ്ടന്റ്കള് വാര്ത്തകള് പരസ്യങ്ങള് അങ്ങനെയൊക്കെ കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്കായാലും നമ്മുടെ ഇതേ സ്ഥലത്ത് ഇപ്പം ഒരു ഈ സംഭവം ഉണ്ടായി അപ്പം അത് നമ്മള് അവരെ വിളിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് തോന്നണം അവര് ഇങ്ങനെ പ്രാദേശികപരമയിട്ടുള്ള ഇത് കൊടുക്കുന്നവരാണ് അപ്പം അവർക്ക് കൊടുത്താലവര് അത് പബ്ലിഷ് ചെയ്യുമെന്നുറപ്പുണ്ടെങ്കില് മാത്രമാണല്ലോ നമ്മള് അവര്ക്ക് കൊടുക്കുക അല്ലെങ്കില്പ്പിന്നെ നമ്മളത് അവര്ക്ക് കൊടുക്കാന് നിൽക്കത്തില്ല അപ്പം മെയിനായിട്ട് നമ്മുടെ പ്രദേശ വാര്ത്താ മാധ്യമങ്ങള് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ട് ഉള്ള വാര്ത്തകളൊരുപാട് എടുക്കാന് ശ്രദ്ധിക്കുക ഇല്ലെങ്കില് ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരിക്കാരെ നഷ്ടമാവുകയെന്നല്ലാതെ ഒന്നും ചെയ്യില്ല പിന്നെ വാർത്തകളുടെ ജനുവിനിറ്റി ഇപ്പം ഒരുപാട് മോശമാണ് കാരണം കൊടുക്കുന്ന എല്ലാ വാര്ത്തയും നൂറ് ശതമാനം ശരിയൊന്നുവല്ല പക്ഷെ മാക്സിമം നിങ്ങള്ക്ക് കിട്ടുന്ന വാര്ത്തകള് അത് എത്ര ശതമാനം ജനുവിനാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യുക അല്ലാതെ നമ്മളൊരു വാര്ത്ത കൊടുത്തിട്ടത് തെറ്റിക്കഴിഞ്ഞാലത് ക്ഷമ ചോദിക്കുന്നതിലല്ല അര്ത്ഥം വ അതിനെക്കാല് നിങ്ങൾക്കൊരു വാര്ത്ത കിട്ടിയാല് അത് എത്രമാത്രം ശരിയാണ് എന്ന് നമ്മള് സ്വയമൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മള് കൊടുക്കുക എങ്കില് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ പൊതി പിന്നെ മറ്റു പ്രശ്നങ്ങളെന്ന് പറയുമ്പം എല്ലാം ഇപ്പം നമ്മുടെ മീഡിയക്കായാലും പണത്തിന് വേണ്ടിയാണിതൊക്കെ ചെയ്യുന്നത് ഒര് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലെങ്കിലൊരു പണത്തിന് വേണ്ടി മീഡിയാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വില കിട്ടും എന്നുള്ള ഒരു കാരണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഒരു മാധ്യമ ധര്മ്മം ഒന്നും നോക്കിയിട്ട് ഒന്നുവല്ല ഇപ്പോഴത്തെ ആള്ക്കാര് ചെയ്യുന്നത് അതൊരു മ മെയിനായിട്ടുള്ള ഉള്ള ഡിഫിക്കള്ട്ടി തന്നെയാണത് കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിനെന്ന് വെച്ചാൽ ഒരുപാട് റെസ്പോണ്സിബിളിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം ആന്റെതായിട്ടുള്ള കാര്യങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് ഇല്ലെങ്കില് പിന്നൊരു മാധ്യമ സ്ഥാപനം കൊണ്ടര്ത്ഥവില്ലല്ലോ നമ്മുടെ മുമ്പില് വരുന്നത് എന്താണെങ്കിലും ലാഭം നോക്കിയല്ലല്ലോ അപ്പം ഒരു മാധ്യമ സ്ഥാപനമെന്ന് പറയുമ്പം സത്യം എന്താണോ അത് തുറന്ന് പറയുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ പല മാധ്യമങ്ങളും സത്യം തുറന്ന് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായൊര് കാര്യം അത് എന്തിനെയാ പൊളിറ്റിക്കലി ആയാല്ത്തന്നെ അവര് സത്യം പറയുന്നിൽ എല്ലാ സത്യങ്ങളും മറച്ച് വെച്ച് അവര് മന കേള്ക്കുന്ന വായനക്കാരെ കണ്ഫ്യൂഷനാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാര്ത്തകളൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണിപ്പം പണ്ടത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് വര്ഷം മുൻപൊക്കെ നമ്മള് ഒരു മാധ്യമങ്ങള് എന്ന് പറയുമ്പോൾ ഒരു പ്രസ് എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കുന്ന ഒരു വില ഒരു വാല്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈയൊരു കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ പ്രസിന് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിലയില്ല ഒരു പുച്ഛം തന്നെയാണ് സത്യം പറഞ്ഞാൽ ജനങ്ങള്ക്ക് കാരണം സത്യസന്ധതയില്ലാത്ത ആ ഒരു വാര്ത്താ മാധ്യമങ്ങള് ഇങ്ങനെ പറയുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമുക്കൊരു വേറെ വാല്യൂ അവര് തന്നെയാണ് നശിപ്പിച്ചത് കാരണം പൈസക്ക് വേണ്ടി അവര് ഓരോന്നും ചെയ്ത് കൂട്ടുന്നതിന്റെ ആഫ്റ്റർ ഇഫക്ട് ആഫ്റ്റർ ഇഫക്ട് ആണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ നമ്മള് കാണുന്നത് അത് മെച്ചപ്പെട്ത്തണമെങ്കില് ആദ്യം സത്യസന്ധമായ വാര്ത്തകള് സത്യസന്ധമായി ആളുകളിലേക്ക് എത്തിക്ക്കാന്നുള്ളതാണ് മെയിനായിട്ടവര് ചെയ്യണ്ടത് ലാഭം നോക്കാതെ പണത്തിന്റെ പുറകെ പോകാതെ ഒരു വാര്ത്ത വന്നാൽ ആദ്യം അവര് വിളിച്ച് ഇതിനാത്തെന്തെങ്കിലും ലാഭമുണ്ടോയെന്ന് നോക്കിയിട്ടില്ല പക്ഷെ നമ്മളുടെ ഒരു പൊതു നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള വാര്ത്ത വന്നാലത് മാധ്യമങ്ങള് കൊടുക്കണം എങ്കില് മാത്രമേ ആ സ്ഥലത്തെ ആള്ക്കാര്ക്കതറിയുവാനും പിന്നീട് നമ്മള് തന്നെ ആ ഒര് മാധ്യമം നോക്കുമ്പോൾ ആ നമ്മുടെ പ്രാദേശിക വാര്ത്തകളുണ്ട് അപ്പം ഇത് നമുക്ക് ഉപകാരം ചെയ്യുമെന്നവര്ക്ക് തോന്നണം അല്ലാതിപ്പം നമുക്ക് കൊല്ലത്ത് നിൽക്കുന്നവന് തിരുവനന്തപുരത്തെ ഒരു വാര്ത്തയറിഞ്ഞിട്ട് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്ക ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരു ചരമമായാലും ഒരു കായികപരമായിട്ടുള്ള വാര്ത്തകളായാലും പൊളിറ്റിക്കല് ആയിട്ടുള്ള വാര്ത്തകളൊക്കെ ആയാലും പ്രാദേശികപരമയിട്ടുള്ള ഒരുപാട് ന്യൂസുകള് നമുക്ക് പ്രാദേശികതലമായിട്ടൊള്ള പേജുകളുണ്ട് അപ്പം അതിനെയൊക്കെ ഇന്ക്ലൂഡ് ചെയ്താല് മാത്രമേ നമുക്ക്

അവരൊക്കെ ഒരു പ്രസ് എന്ന രീതിക്ക് ആളാവനും അത് മുതലെടുത്ത് ജീവിക്കാനും മാത്രമായിട്ട് പോവുന്നവരാണ് അല്ലാതെ അവരൊരിക്കലും മാധ്യമ ധര്മ്മമൊന്നും വെച്ച് പുലര്ത്തി കൊണ്ടു പോവുന്നവരൊന്നുവല്ല അവര് സ്വന്തം ആവശ്യങ്ങള്ക്ക് വേണ്ടി മാത്രം ആണ് ഇതുപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഒക്കെ ഒരുപാട് മാറ്റങ്ങള് വരുത്തണം പിന്നെ സര്ക്കാരിന്റെ ഭാഗത്ത് നിന്നും അതിനൊക്കെ ഒരുപാട് ഇത് കൊണ്ടുവരാന് സാധിക്കണം ഒരുപാട് ലിമിറ്റേഷന്സ് ഒക്കെ ചെയ്യണം ഇല്ലെങ്കില് ഒരുപാടൊക്കെ ഇപ്പം അതിര് വിട്ട് പോകുന്നുണ്ട് മാധ്യമപ്രവര്ത്തകരോക്കെ അപ്പം അതൊക്കെ ഒന്ന് ഹാന്ഡില് ചെയ്തില്ലെങ്കില് ഭാവിയിലത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരും